പൂന്തോട്ടത്തിൽ എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ഉണ്ടോയെന്ന് വച്ചു കഴിഞ്ഞാൽ പൂന്തോട്ടത്തിൽ നിലനിർത്താൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താ പറയുക എന്താ പറയുക വെള്ളത്തിൽ വെള്ളം ഇപ്പോൾ ഒരുപാട് കെട്ടി നിന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ് അതുപോലെതന്നെ ചെറിയ ചെറിയ പ്രാണികളെല്ലാം പൂക്കളെല്ലാം തിന്നുന്ന അതുപോലെതന്നെ അതിൻ്റെ തണ്ടും അതേപോലെതന്നെ ഈ പുഴുക്കളെല്ലാം ഇലകളെല്ലാം ഭക്ഷിച്ചിട്ട് ഒരുമാതിരി മുരടിച്ച അവസ്ഥയിലേക്ക് ചെടികൾ മാറാറുണ്ട് അഥവാ അങ്ങനെയുള്ള സമയങ്ങളിൽ പച്ചില വിഷത്തിൻ്റെ കഷായമൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് മാറ്റാറ് അങ്ങനെ അങ്ങനെ അല്ലാത്ത സമയങ്ങളിൽ വച്ചു കഴിഞ്ഞാൽ നല്ല വേനൽ കാലങ്ങളിലാണെങ്കിൽ വെള്ളത്തിൻ്റെ കുറവാണ് അപ്പോൾ നല്ല അത്യാവശ്യം വെള്ളം കൊടുക്കാറുണ്ട് അതുപോലെതന്നെ ചാണക വളമൊക്കെയാണ് ഉപയോഗിക്കാറ് അല്ലാണ്ട് അല്ലാത്ത വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ചാണകവളങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്ക് മണ്ണിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ മറ്റേ കുമ്മായം ഇടാറുണ്ട് പിന്നെ ചട്ടിയിലൊക്കെ നട്ട ചെടികളാണെങ്കിൽ ഇപ്പോൾ മാറ്റി മാറ്റി നടണം അങ്ങനെ പ്രശ്നമുണ്ട് മണ്ണിൽ നട്ടതാണെങ്കിൽ സൈഡ് എന്താ പറയുക റോസിൻ്റെ കമ്പൊക്കെ ആണെങ്കിൽ മുറിച്ചു കൊടുത്താൽ മതി അപ്പം അത് നിലനിന്നു പോവാൻ വേണ്ടിയിട്ടും അതുപോലെതന്നെ പൂക്കൾക്ക് ഇന്നൊരു കേടുപാടില്ലാണ്ട് ഇതാവുന്നുണ്ട് ഇപ്പം ഡാലികയ്ക്കാണെങ്കിൽ അതൊന്നുപോയി പിന്നെ അതിൻ്റെ മുള വരണമെങ്കിൽ ആ കിഴങ്ങ് ആടി പോവാണ്ട് എന്താ പറയുക കാറ്റത്ത് ആടി പോവാണ്ട് അതിൽ വെള്ളം ഇറങ്ങാണ്ട് ചീയാണ്ടെല്ലാം നോക്കണ്ടെ അത് കുറച്ച് കഷ്ടപ്പാടിലാണ് ഗാർഡനിങ് ഉള്ളത്